ഞങ്ങളുടെ പ്രാദേശികമായ കമ്പോളത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളെന്നു വെച്ചാൽ ഒന്നാമത് ട്രാവൽ യാത്ര ചെയ്തുകൊണ്ടുള്ള ഫാമിൽ നിന്നും മാർക്കറ്റിലേക്കുള്ളൊരു യാത്ര തന്നെയാണ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിന്നേ അത്രയും യാത്ര ചെയ്ത് മാർക്കറ്റിലെത്തുമ്പോഴും അതിനു വേണ്ടത്ര വില കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ബുദ്ധിമുട്ട് കർഷകൻ്റെ എന്താണ് കർഷകൻ്റെ പണിയെടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും മാത്രമേ ബാക്കിയാവുന്നുള്ളു അത് അദ്ദേഹത്തിനൊരു മൂല്യവർദ്ധനമായി മാറുന്നില്ല എന്നതാണ് നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള അതിൻ്റെയൊരു ബുദ്ധിമുട്ട് വരുന്നത് പിന്നേ മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള വില കിട്ടിയാൽത്തന്നെ കർഷകർക്ക് ഒരുപാട് ഉപകാരമായിരുന്നു ഇന്നത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളെത്തിക്കാൻ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്നു പറഞ്ഞാൽ ഒന്ന് ഇതു തന്നെയാണ് ഒന്നവർക്ക് യാത്രാസൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും എത്തി പിന്നെ എത്തിച്ചു കഴിഞ്ഞാലുള്ള വില ഇവിടെയുള്ള ആൾക്കാരുടെ സമീപനവുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം